ഞങ്ങൾ കഥാപാത്രങ്ങളെ രൂപം നൽകുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് എൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള സിനിമകളായിട്ടും സീരീസുകളായിട്ടും ഒക്കെ കാണുന്നവരാണ് അതുപോലെ തന്നെ പത്രം വായിക്കുന്നവരാണ് പുസ്തകം വായിക്കുന്നവരാണ് അതുപോലെ തന്നെ ആനുകാലികങ്ങളും അതിനൊക്കെ വായിച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സറൗണ്ടിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത്കൊണ്ടുള്ള ഒരു രൂപം ഉണ്ടാക്കാനാണ് വെറും ഒരു ട്രൂ സ്റ്റോറിയിലൂടെ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവലംബിക്കാതെ എല്ലാം മിക്സ് ചെയ്ത് കണ്ട് അതിന്റെ ഉള്ളിലൂടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിക്കും ആ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഒരു കഥയായിട്ട് ചില നേരത്ത് നമ്മൾ മാസ്റ്റർ പീസ് ആയിട്ട് നമ്മൾ മക്കാര് അങ്ങനത്തെ കാര്യങ്ങളാണ് സമൂഹത്തിലെയും അതുപോലെ തന്നെ മനുഷ്യർ മനുഷ്യരിലേക്ക് യഥാർത്ഥ സംഭവങ്ങൾ ഒരു വിവേദിച്ച് കൊണ്ടൊക്കെ നമ്മൾ കൊണ്ട് വരാറുണ്ട് വർണിച്ചുകൊണ്ട് നമ്മൾ കൊണ്ട് വരാറുണ്ട് അതോടൊപ്പം തന്നെ അത് മാത്രം ഒതുക്കാറില്ല അതൊരു വശമാണ് അങ്ങനെ മാത്രം എഴുതുന്ന കഥകളുമുണ്ട് പക്ഷേ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ കലകളും കഥാപാത്രങ്ങളും മറിച്ച് കഥകൾ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് അറിയുന്നത് ചിലപ്പോൾ നമ്മൾ റിയൽ ആയിട്ടില്ലാത്ത ഇമേജിനായിട്ട് നമ്മൾ ഇമേജിൻ ചെയ്യുന്ന സൂപ്പറ് നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ നമ്മൾ എഴുതും നമ്മൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കഴിവുകൾ ഉണ്ടാകും അത് നമ്മുടെ അധീനതയിൽ പ്രകൃതിയാൽ നമുക്ക് കിട്ടാതെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ് അതാണ് നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ വെറും റിയൽ ആയിട്ടുള്ളതല്ല മറിച്ച് എന്താണ് നമ്മൾ റിയൽ ആയിട്ട് കാണാൻ നമ്മൾ സ്വപ്നമായിട്ട് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ നമ്മൾ ഈ കഥയിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും സാക്ഷാത്കരിക്കുക എന്നുള്ള ഒരു രീതി അങ്ങനത്തെ രീതിയാണ് നമ്മൾ അപ്പ്രോച്ച് ചെയ്യാറുള്ളത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഓക്കെ അതായത് ഒരു റിയൽ ആകുമ്പോൾ ഒരു നിലക്ക് ഒരു കൂട്ടം ആളുകൾക്ക് പറ്റും മറ്റു ചില കൂട്ടം ആളുകൾക്ക് പറ്റില്ല അപ്പം റിയൽ ആയിട്ടുള്ളതും എഴുതും ട്രൂ സ്റ്റോറിയും എഴുതും അതോടൊപ്പം തന്നെ നമ്മൾ സൂപ്പർ നാച്ചുറൽ എഴുതും അതോടൊപ്പം തന്നെ അതിൽ കോമഡി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും ഇൻവെസ്റ്റഗേഷൻ മോഡലുകളുണ്ടാകും വളരെ ക്യൂരിയോസിറ്റിയോടെ കാണുന്നതുണ്ടാകും നല്ല റിലാക്സ് ആയിട്ട് കാണാൻ പറ്റുന്നതുണ്ടാകും തെറാപ്പി മോഡല ആയിട്ടുള്ളതുണ്ടാകും നമുക്ക് ഒരു ഫീൽ ഗുഡ് ആയിട്ട് തോന്നുന്നതുണ്ടാകും ഫീൽ ബാഡ് ആയിട്ട് തോന്നുന്നതും ഫീൽ ബാഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഫീൽ സാഡ് ആയിട്ട് ഇമോഷൻ ടച്ച് ഉള്ളതൊക്കെ അടങ്ങിയതായിരിക്കും നമ്മുടെ കഥ എന്ന് പറയുമ്പോൾ അതിൽ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ടച്ചിങ് ആയിട്ട് തോന്നും ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ഇമ്പോസിബിൾ ആയിട്ടൊക്കെ തോന്നാം